ജോലി സ്ഥലത്ത് നമുക്ക് നേരിടേണ്ട വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മള് ഇപ്പം നമ്മള് ഒരു പ്രൊജക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം പറഞ്ഞ് കഴിഞ്ഞാൽ ഞാന് ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം മെയിൻ ആയിട്ട് വർക്ക് വരണ്ട ദിവസങ്ങളില് ലേബേഴ്സ് ലീവും കാര്യങ്ങളും ആയിപോയി പിന്നെ പണി പെൻഡിങ് ആകുമ്പോൾ ഉള്ള പ്രശ്നം അതായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ വെല്ലുവിളി ആയി തോന്നിയിട്ടുള്ളൊരു കാര്യം കാരണം നമ്മള് സൈറ്റില് എന്താ പറയുക സൈറ്റില് അത്രയും ഇതില് ബെറ്റർ ആയിട്ടും നമ്മള് പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ആൾക്കാരെ വെച്ച് നമ്മള് നമ്മളവിടെ അവിടെ ഒരു പേർ ഡേ ഇത്ര ജോലിക്കാരെ വെച്ചിട്ട് നമ്മള് ജോലി ചെയ്യിക്കാൻ നിർത്തിയത് അപ്പം അവര് ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക അവര് പകുതി ആൾക്കാര് ലീവ് ആക്കുകയും നമുക്ക് അന്നേ ദിവസത്തെ ജോലി പെൻഡിങ് ആവുകയും ചെയ്തത് കൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ദിമുട്ട് തന്നെ ആണ് അതില് ഉണ്ടായത് അത് അപ്പം നമ്മള് നേരിടേണ്ട വന്ന ഒരു മെയിൻ ആയിട്ടുള്ള വെല്ലുവിളി ആയിട്ട് തന്നെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ പ്രൊജക്റ്റിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫാൾട്ടാണ് അപ്പം അവരെ അടുപ്പിച്ച് രണ്ടു മൂന്ന് ദിവസം തന്നെ ലീവ് എടുത്ത് കഴിഞ്ഞതിനെ തുടർന്ന് നമുക്ക് എന്താ പറയുക വർക്കില് എത്രയും ഇത് വന്നു ഡിലെ ആയിപ്പോയി അപ്പം അത് നമുക്ക് ആ പ്രൊജക്റ്റിന് വന്ന ഒരു ഫാൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്